ഹലോ മാം ഇത് എ ബി സി ഹോസ്പിറ്റലിൽ നിന്ന് ആയിരുന്നേ ആ മാം ആ അടുത്ത ദിവസം മാമിന് ഒരു അൾട്രാ സൗണ്ട് സ്കാനിംഗുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വരാൻ വരാനായിട്ട് അറിയിക്കാനായിട്ട് വിളിച്ചതായിരുന്നേ നിങ്ങൾക്ക് ഒരു രാവിലെ തന്നെ വരാം ഒര് പത്ത് മണിയൊക്കെ ആകുമ്പത്തേനും വരാം ചീട്ടെടുത്തിട്ട് അപ്പം ചീട്ടെടുത്തിട്ട് സ്കാനിംഗ് സെൻ്ററിലോട്ട് വന്നാൽ മതി ആ ഫുഡ് കഴിക്കേണ്ട ആവശ്യം ഇല്ല നമ്മള് വ വ വെറും വയറ്റില് വരണം മാക്സിമം രണ്ട് ലിറ്ററ് വെള്ളം എങ്കിലും കുടിക്കണം യൂറിൻ പാസ് ചെയ്യരുത് അപ്പോൾ ആ ഒര് രീതിയിൽ വരണം പിന്നെ ഇതിന് നിങ്ങൾക്ക് കോസ്റ്റാവുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ ഇൻഷുറൻസിൻറ്റേതായ എന്തെങ്കിലും ഉണ്ടെങ്കില് നമുക്ക് അതിൽ നിന്ന് റിഡക്ഷൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അത്ര അടയ്ക്കണ്ട വരു വരില്ല ആ ആ ആ സ്കാൻ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചീട്ട് ചീട്ടെടുക്കുമ്പോൾ നമ്മളൊരു പേയ്മെൻറ്റും ചെയ്യണം അതിന് ശേഷം അതിന് ശേഷം നമ്മള് സ്കാൻ ചെയ്തതിൻ്റെ സെയിം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് ചെയ്യാം അതിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്യാം രണ്ട് നമുക്ക് അവൈൽ ഓപ്ഷനുണ്ട് രണ്ട് ഓപ്ഷൻസുണ്ട് ആ സ്കാൻ ചെയ്ത റിപ്പോർട്ടും ആയിട്ട് അടുത്ത വീ പിന്നെ ഒര് ദിവസം നിങ്ങള് ഡോക്ടറിനെ കാണാനായിട്ട് വന്നാൽ മതി അപ്പം ഡോക്ടറ് പറഞ്ഞ് തരും ഇതിനെ കുറിച്ച് കൂടുതലെന്ത് എൻ എല്ലാം പറഞ്ഞ് തരും

ആ സ്കാൻ ചെയ്യുന്നേനെ കഴിഞ്ഞ് മുന്നേ വേറെ ടെസ്റ്റൊന്നും ഇല്ല സ്കാനിംഗാണ് ആദ്യമേ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടാകുമായിരിക്കും ആ അത് ഡോക്ടറ് പറയും ആ ഓക്കെ മാം എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇല്ല ഓക്കെ ശരി താങ്ക്യൂ